ഹലോ നമസ്കാരം ഞാനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ ഒരു പുതിയ പ്രൊഡക്റ്റില് ലോഞ്ച് വരുന്നെന്ന് പറയ് ഇൻഷുറൻസിൻ്റെ അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഓക്കെ ഞാന് മറ്റെ എന്നാ ഇ എം വൈ നമ്മടെ പോസ്റ്റ് ഓഫീസിൽ ഇള്ള ഒരു ഇൻഷുറൻസ് ആണ് അത് മെഡിക്കൽ ആണോ എനിക്ക് അറിയില്ല അതെ അതെ അതെ അതെ ഓക്കെ ഇല്ല മാരീഡ് അല്ല പാരൻറ്റ്സ് ഉണ്ട് വീട്ടില് അമ്മയും അച്ഛനും ഉണ്ട് വീട്ടില് പാരൻറ്റ്സിനെ കൂട ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ അവർക്ക് കൂടെ ആ ഒര് ഇത് ആവും അല്ലൊ ആ ഓക്കെ ആ ചിലപ്പം ഒരു സിക്സ്റ്റി സിക്സ്റ്റി വൺ അത്രെ ഉണ്ടാവുകയുള്ളു ആ ഓക്കെ

ആ ഓക്കെ ആണോ ഓക്കെ ഇപ്പം നമ്മൾ അതിന് എത്ര ഈ ഇത് എമൗണ്ട് എത്ര ആയിരുന്നു വരുന്ന മാസം ആണോ ആ ഇയറില് വേണോ ക്വാർട്ടറിലി വേണോ എങ്ങനെയാ വേണ്ടത് ആ ഓക്കെ അത് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് പറഞ്ഞിട്ട് എന്താ അടക്കണ്ടി വരിക അപ്പം ആ ഓക്കെ അത് നമ്മക്ക് ചെക്ക് ചെക്ക് ചെക്ക് മതി ആ ഫണ്ട് ഒക്കെ ഉണ്ട് നമ്മൾ അപ്പം ചെക്ക് അത് എന്ന് ആണെങ്കിലും ഇഷ്യൂ ആയാൽ പ്രശ്നം ഇല്ല

ആ ഡി ടി ആറിൻ്റ ഡീറ്റെയിൽസ് ന് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാമോ ഞാൻ അത് ഒക്ക റെഡി ആയിട്ട് നാളെ ഉച്ച ആകുമ്പോഴേക്കും വരാം ഈ ചെക്കും ആയിട്ട്

അപ്പം എന്നാ ഞാൻ എന്നാന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം ഓക്കെ നാളത്തന്നെ അപ്പോൾ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റില്ലായിരിക്കും അല്ലെ നിങ്ങള് നാളെ ഇപ്പം ചെക്ക് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് ആകുമ്പോൾ അപ്പത്തന്നെ ക്യാഷ് കിട്ടുമല്ലൊ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം ആ ഓക്കെ ഓക്കെ താങ്ക്യൂ